പാടാനായി സമയം മാറ്റിവെക്കുന്നൊന്നുമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ള സമയം നമ്മള് ജോലിചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല പാട്ടുകളൊക്കെ മനസ്സിൽ വരുമ്പോൾ നമ്മളത് പാടുകയും പാടുകയും നല്ലപോലെ നമ്മള് തന്നെ സ്വന്തമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറ് പാട്ടുകൾ പഠിക്കുന്നത് റേഡിയോയിൽ കൂടെ കേട്ടും യു ട്യൂബിലൂടെ ഒക്കെ കേട്ടും പിന്നെ ടി വിയിലൂടെ ഒക്കെയാണ് പാട്ടുകള് നല്ല പാട്ട് നമ്മള് കേട്ടുകഴിഞ്ഞാൽ അതിനോടൊരു സന്തോഷം തോന്നുകയും പിന്നെ അത് മൂളിമൂളി നടക്കും അത് കഴിയുമ്പോള് അതിൻ്റെ വരി പഠിച്ചിട്ട് അതിനെ നമ്മള് പാടും അ പാടി അ പാ ക് കെ അങ്ങനെ ആണ് ചെയ്യുന്നെ അല്ലാതെ ഇപ്പോള് ദിവസത്തില് ഇത്ര സമയമൊന്നുമില്ല ഒരൂ ജോലിചെയ്യുന്ന സമയത്തോ എപ്പോളഅ വേണേലും നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് പാട്ടുകൾ വരുന്നത് അത് അനുസരിച്ച് ഒരൂ സിനിമ ഇറങ്ങിയാലും അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയിട്ട് ഒരു പാട്ട് നമ്മളെ ആകർഷിച്ചാലും ആ ആ പാട്ട് നമ്മള് എവിടുന്നെങ്കിലും നോ നോക്കിയെടുത്ത് കണ്ടുപിടിച്ച് അതിനെ നമ്മള് ഇമ്മാതിരി പഠിക്കുകയും അതിനോടൊപ്പം പാടാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അല്ലാതെ പാ ട്ടുകൾ പാടാനായിട്ട് ഒരു ദിവസത്തിൽ എത്രസമയം മാറ്റിവെക്കും അങ്ങനൊന്നില്ല ജോലിയുടെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളിൽ ഇടവേളകളിൽ പാട്ട് പാടുകയും പഠിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനേ ആ പാ ഒരു പാട്ടിനോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എവിടെനിന്നാണ് അത് കിട്ടിയത് എന്താണ് അത് എന്നെല്ലാം നോക്കി മനസ്സിലാക്കി അതുപോലെ പാടും അത് പാട്ട് ആസ്വദിക്കുകയും ചെയ്യും പാടുന്നതിനേക്കാൾ കൂടുതൽ പാട്ട് ആസ്വദിക്കാനാണ് ഇഷ്ട്ടം എന്നുപറഞ്ഞാല് റേഡിയോയിലൂടെ വരുന്ന നല്ല പാട്ടുകള് രാവിലെ റേഡിയോ മീഡിയ വില്ലേജ് വച്ചുകഴിഞ്ഞാൽ ഒരൂ ഇപ്പോള് എട്ട് ആറ് ആറുമണിവരെയും ആം കേള്ക്കുന്ന സമയമാണ് അത് കഴിയുമ്പോഴത്തേക്കും അതുവരെയും അതിനകത്ത് കേള്ക്കുന്ന പാട്ടുകളും ഓരോരുത്തരുടെ ബർത്ത്ഡേയ്ക്ക് അതിനകത്ത് വരുന്ന എന്നാ ഗിഫ്റ്റ് ഓരോ മനുഷ്യരുടെയും വെഡിങ് ആനിവേഴ്സറി ബർത്ത് ഡേ സെലിബ്രേഷനൊ അങ്ങനൊക്കെ വരുമ്പോള് ഓരോ പാട്ടിടും അതൊക്കെ കേട്ട് ആസ്വദിക്കാറുണ്ട് അതൊക്കെ ഒരു നല്ല ഇതായിട്ട് തോന്നാറുമുണ്ട്